ആ ഇത് ഞാനേ കുന്നന്താനത്തുനിന്ന് ഒരാളാണേ എനിക്ക് ഒരു അൽപ്പം സ്ഥലം വേണമായിരുന്നു ആ അതിനുവേണ്ടിയിട്ടാണ് വിളിച്ചത് ആ അത് തന്നെ അത് തന്നെ അത് തന്നെ ആ എനിക്ക് വേണ്ട്ത് വീട് ഉൾപ്പെടെ ഉള്ളതാണെങ്കിൽ വലിയ പഴക്കമില്ലാത്ത വീടാണ് കൊഴ കുഴപ്പമില്ല പിന്നെ പഴക്കമുള്ള വീട് ആണെങ്കിൽ വീട് വേണമെന്നില്ല സ്ഥലം മാത്രം മതി അത് ആ അത് അത് റോഡ് സൗകര്യം ഉണ്ടായിരിക്കണം പിന്നെ വെള്ളം കിട്ടുന്നിടം ആയിരിക്കണം പിന്നെ നമുക്ക് സ്കൂൾ പള്ളി അങ്ങനെയൊക്കെ വലിയ ദൂരമില്ലാത്ത ഒരു ഏരിയ ആയിരിക്കണം ആ ആ റോ റോഡ്സൈഡിന് കുഴപ്പമില്ല പിന്നെ വലിയ സിറ്റി വേണമെന്നൊന്നുമില്ല നമ്മുടെ ഈ പ്രദേശ അടുത്ത പ്രദേശത്ത് അതായത് കുന്നന്താനമോ അല്ലെങ്കിൽ ചെങ്ങന്നൂരോ മാന്താനമോ അതുപോലെ ഒക്കെ റോഡ് സൗകര്യം ഉണ്ടായിരിക്കണം ആ സിറ്റിയോട് ചേർന്ന് ആ ആ ആ അത് എന്തുമാത്രമുണ്ട് സ്ഥലം ഒക്കെ അത് ശരി അപ്പം അത് എന്തോ റേറ്റ് വരുമായിരിക്കും ആ ഹാ ആ ആ എനിക്ക് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ മുന്നോട്ട് പോകരുത് പക്ഷേ അത്രയും മുടക്കുമ്പോൾ വീട് നല്ലതായിരിക്കണം

ആ ഒത്തിരി പഴക്കമുള്ള വീട് വേണ്ട ഒത്തിരി പഴക്കമുള്ള വീട് വേണ്ട പിന്നെ വലിയ മോഡേൺ ആവണം എന്നൊന്നുമില്ല ഒറ്റ നിലയുള്ള വീടായാലും മതി രണ്ടുനില വീട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ സാധനം വന്നപ്പം ആർക്കും രണ്ട് നിലയിലോട്ട് കയറാനും എടുക്കാനും ഒന്നും വയ്യാത്തതുകൊണ്ട് താഴെയൊരു നാല് ബെഡ്റൂം എങ്കിലും ഉള്ളതായിരിക്കണം അതിനോട് അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെയുള്ളത് മൂന്ന് ആയാലും കുഴപ്പമില്ല നാല് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്

ആ അത് അത് അടുത്ത് വേണം നമുക്ക് പള്ളിയും സ്കൂളും ദൂരമായിട്ട് വന്നാൽ പിള്ളേർ സ്കൂളിൽ പോകാനുണ്ട് അതുപോലെ തന്നെ പള്ളിയിൽ നമുക്ക് എന്നും പോകേണ്ടതായതുകൊണ്ട് പള്ളിയുടെ സൗകര്യവും അത് ഒരു ആവശ്യമായി വരും

ആ അതിന് കുഴപ്പമില്ല ആ ആ ആ ആ ഓക്കെ ഓക്കെ ആ

ആ നമുക്ക് മുന്നോട്ട് പോവാം ഞാൻ ആ ആ കുഴപ്പമില്ല കുഴപ്പമില്ല അങ്ങനെ ഉണ്ടെന്ന് വരുകിൽ ഞാൻ വരാം വന്നിട്ട് നമുക്ക് അത് അവിടെ പോയി ചെന്ന് അത് കണ്ട് എല്ലാ ഏർപ്പാടാക്കാം ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ബൈ ഓക്കെ ബൈ